ഹലോ ആ മേടം ടിക്കറ്റ് ഓഫീസർ ആണോ ആ ഞാൻ വിളിച്ചതെ എനിക്ക് കോഴിക്കോട് വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് വേണമായിരുന്നു ഏത് ട്രെയിൻ ഉണ്ട് എന്ന് ഒന്ന് അറിയാൻ പറ്റുമോ മേടം എനിക്ക് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു

ഇത് ഇത് ആലപ്പുഴ വഴിയാണോ മേടം പോകുന്നത് അതോ കോഴിക്കോട് ഇത് കോട്ടയം വഴിയാണോ മ്മ് മ്മ് വന്ദേഭാരത് എത്ര മണിക്കാ അതിൽ അതിൽ ടിക്കറ്റ് കിട്ടുമോ ഹ്മ് ആ വെയിറ്റിംഗ് ലിസ്റ്റാ എ സി ഫസ്റ്റ് ക്ലാസ്സ് എ സി എ സി എ സി ഉണ്ടോ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ എ സി തന്നെ അപ്പോൾ എനിക്ക് എ സി യിൽ ഒന്ന് ബുക്ക് ചെയ്തു ഓ എ സി ഒന്ന് ബുക്ക് ചെയ്താലും മതി എത്ര രൂപയാണ് ടിക്കറ്റ് റേറ്റ് എൺപതോ ആ ഓക്കെ മാം താങ്ക് യു ഹ്മ് ഹ്മ് ഹ്മ്